മലയാളഭാഷയെന്ന് കേൾക്കുമ്പോള് പലതരത്തിലുള്ള ആശയങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് മലയാള സംസ്കാരം അതുപോലെ തന്നെ മലയാളിയുടെ വ്യക്തിത്വം ഇവയൊക്കെ നമ്മുടെ മലയാളഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളഭാഷ അല്ലെങ്കിൽ കേരളീയനെ നമ്മള് എവിടെച്ചെന്നാലും അറിയപ്പെടുന്ന ഒരു ചിത്രമാണ് കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്കുള്ളത് മലയാളഭാഷ നമ്മുടെ മലയാളഭാഷയുടെ പിതാവെന്ന് പറയുന്നത് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള എഴുത്തുകള് നമുക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങള് നമ്മുടെ പഠനകാലങ്ങളില് ഉണ്ടായിട്ടുണ്ട് ആ രചനകളിലൂടെയും നമുക്ക് നമ്മുടെ കേരളീയ സംസ്കാരവും മലയാളി സംസ്കാരവും ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് വിളിച്ചോതുന്ന തരത്തിലുള്ള രചനകളാണ് അദ്ദേഹത്തിനുള്ളത് ആ ഓരോ സംസ്കാര രീതികള് നമ്മളോരോരുത്തരും അതായത് ആ പാഠഭാഗങ്ങളും അതിനെക്കുറിച്ച് വായനകളും നടത്തുന്ന കുട്ടികൾക്കും അതുപോലെ ടീച്ചർമാര് പറഞ്ഞുകൊടുക്കുന്നതിലൂടെയും ഓരോ കുട്ടികൾക്കും അവരുടെ സംസ്കാരരീതികള് വിപുലപ്പെടുത്തിയെടുക്കാനും നല്ല രീതിയില് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കാറുണ്ട് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഒരു അവസ്ഥയ്ക്ക് കുറേ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമെന്നും ഞാൻ വിശ്വസിക്കുന്നു മലയാളത്തനിമയ്ക്ക് ഒരുപാട് പ്രാധാന്യം കുറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആ മലയാളഭാഷയുടെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടുതുടങ്ങി ഇപ്പോൾ അധികം കുട്ടികളും ആംഗലേയ ഭാഷയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതും അതോടൊപ്പം ആ രീതിയിൽ മുന്നോട്ട് പോകാനുമാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മലയാളഭാഷ പഠിക്കുന്നതിനും അതിന് പ്രാധാന്യം നൽകുന്നതിനും ഇന്നത്തെ സമൂഹം വളരെയധികം പിറകിലാണെന്ന് നമ്മള് സമർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഈ മലയാളഭാഷയുടെ പഠനവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല പ്രബന്ധങ്ങളും പല രീതികളും നമ്മുടെ സംസ്കാരവും അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും യുവാക്കളുടെയും മുതിർന്നവരുടെയും വ്യക്തിത്വത്തെ വളരെ നല്ല രീതിയില് അവരുടെ ഉപജീവനമാർഗ്ഗവും അവരുടെ ജീവിത മാർഗ്ഗങ്ങളും നല്ല രീതിയില് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ മലയാള തനിമ അല്ലെങ്കിൽ ഭാഷ വളരെയധികം പ്രാധാന്യമാണ് അർഹിക്കുന്നതും കൊടുക്കുന്നതുമെല്ലാം നമ്മുടെ മലയാളമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കേരളം കേരം തിങ്ങും കേരള നാടും ആ കേരളത്തിൻ്റെ പ്രകൃതിയാലുള്ള പല സന്ദേശങ്ങളും അതുപോലെ തന്നെ പല സംസ്കാരരീതികളും തെളിവെടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുകയുമാണ് ഈയൊരു മലയാളഭാഷ നൽകുന്നത്